ഹലോ മാനേജരെ ഞാൻ വന്നിട്ടുള്ളത് ആ എൻ്റെ ബാങ്കിൻ്റെ സ്റ്റേമെൻറ്റൊന്ന് പരിശോധിക്കാൻ വേണ്ടീട്ടായിരുന്നു അപ്പം അതൊന്ന് അത് കൃത്യം ആണോന്ന് അറിയാൻ വേണ്ടീട്ട് അതിൻ്റെത് തുക ഒക്കെ കൃത്യം ആണോന്ന് ഉറപ്പാക്കാൻ വേണ്ടീട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ ബേങ്കിന് മൊബൈൽ ആപ്പ് എനിക്ക് ഒന്ന് തരുവാണെങ്കിൽ എനിക്ക് പെട്ടെന്നത് എന്നാ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ എൻ്റെ ഒക്കെ മൊബൈൽ തൂകയൊക്കെയാണ് എത്രയാന്നുള്ളത് ഒക്കെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും ആ ഞാൻ എൻ്റെ മൊബൈൽ നമ്പറ് പറഞ്ഞ് തരാവേ എട്ട് എട്ട് നാൽപത്തി എട്ട് പൂജ്യം ഏഴ് ആറ് എട്ട് മൂന്ന് അതേപോലെ തന്നെ അറുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്നാണ് ബിൽ നമ്പറ് അപ്പം ഇത് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ സ്റ്റേമെൻറ്റ് എനിക്ക് സംഘടിപ്പിച്ച് തരണം അതിൽ പിന്നെ കുറച്ച് പൈസ വരാനുണ്ട് അപ്പം ആ പൈസ അതിൽ ലിങ്ക് അതിലേക്കണ് പോയിട്ട് എൻ്റെ അക്കൗണ്ടിലൊക്കെ വരുന്നള്ളത് എന്ന് കൺഫോമാക്കാൻ വേണ്ടീട്ടും കൂടിയായിരുന്നു അപ്പം എൻ്റെ മൊബൈൽ നമ്പറ് പറയാം ആ ബിൽത്തുകയും നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഉണ്ടായിരുന്നു